ഞാൻ വളരെ നന്നായി പാട്ട് പാടുന്നൊരാളായിരുന്നു എങ്ങനെ എന്റെ സൗണ്ടിനെ സംരക്ഷിക്കാൻ ഞാൻ പലവിധ കാര്യങ്ങൾ ചെയ്യുന്നതാണ് രാവിലെ എണീറ്റ് സാധകം ചെയ്യുക ചൂട് വെള്ളം കുടിക്കുക ചുക്ക് കാപ്പി കുടിക്കുക തണുത്ത സാധനം ഭക്ഷണ പതാർത്ഥങ്ങൾ ഒഴുവാക്കുക ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ എന്റെ സം എന്റെ സൗണ്ടിനെ നല്ല രീതിയിൽ സംരക്ഷിക്കാമെന്ന് നാം ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ സൗണ്ട് നമ്മുടെ ഓരോരുത്തരോടാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു കഴിവായി ഞാൻ ഈ സൗണ്ടിനെ കണ്ടിട്ടുണ്ട് എങ്ങനെയായിരിക്കണം ഞാൻ സംറം സംസാരിക്കേണ്ടതെന്നും എങ്ങനെ ആയിരിക്കണം എന്റെ ശബ്ദം മറ്റുള്ളവരിൽ എത്തണമെന്നും ഞാനാഗ്രഹിച്ചിരുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് മഴ നനഞ്ഞതിനേത്തുടർന്ന് ഒരൊച്ചയടപ്പ് ഉണ്ടായി പല വിധത്തിലുള്ള മെഡിസിൻ കഴിച്ചു നോക്കി കഫ് സിറപ്പ്കൾ കഴിച്ചുനോക്കി പക്ഷേ എനിക്ക് കുറവുണ്ടായില്ല പിന്നെ ഞാൻ ആശുപത്രിയിൽ ചെന്നത് അമ്മ മരുന്ന് തന്നു ആ മരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് കുറവായി ഞാൻ പിന്നീട് പാട്ട് പാടാൻ പോയി ഞാൻ ഞങ്ങളുടെ പള്ളീലേ കൊയറിലൊക്കെയുള്ള ഒരാളാണ് ഞാനെന്നും പാട്ട് പാടുമ്പോൾ എനിക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവായി ഞാൻ ഈ സ ഈ സൗണ്ടിനെ കണ്ടിട്ടുണ്ട് കാര്യം എനിക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഈ സൗണ്ടിലൂടെ സാധിച്ചിട്ടുണ്ട് ഒച്ചയടപ്പിലൂടെ പാട്ട് പാടിയ ഒരുപാടാളുണ്ട് ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ഒരുപാടാളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് കേ യെസ് ചിത്രയേപ്പോലെയുള്ള ആളുകൾ സ്വന്തം സൗണ്ടിലൂടെ സമൂഹത്തിൽ വളർന്ന് വന്നൊരാളാണ് നമ്മുടെ സൗണ്ടിനെ നാം എങ്ങനെ ആണോ മറ്റുള്ളവരിലെക്കെത്തിയ്ക്കാൻ നാം ചിന്തിക്കുക പല വിധത്തിലുള്ള സംഗീത സംവിധായകർ ഇന്ന് നമ്മുടെ മുൻപിലുണ്ട് അവരോരോരുത്തരും ചെയ്തിരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് നമ്മളിലെ സൗണ്ട് എന്താണ് മറ്റുള്ളവർക്ക് നൽകാന്നെച്ചാൽ നമ്മളിലെ സൗണ്ട് കൊണ്ട് മറ്റുള്ളവർക്കെന്തേലും ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അത് ചെയ്തുകൊടുക്കാൻ നാം പരിശ്രമിക്കണം തൊണ്ടയടപ്പ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടായാൽ നമുക്ക് പിന്നീട് പാടുവാൻ പോലും സാധിക്കില്ല അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നത് ഞാൻ കൊച്ചായിരുന്നപ്പം പഠിച്ചൊരു സ്കൂളുണ്ടായിരുന്നു അവിടത്തെ ഞങ്ങൾക്ക് ചോ ആയ ചോറൊക്കെ ഉണ്ണുമ്പോൾ ഞങ്ങളെ സഹായിക്കുന്നൊരു ആയയുണ്ടായിരുന്നു പുള്ളിക്കാരീടെ സൗണ്ടിങ്ങനെ വളരെ ചെറിയ രീതിയിലായിരുന്നു അപ്പം പുള്ളിക്കാരി എന്താണ് അപ്പം ഞങ്ങൾ കഴിക്കുമ്പം സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ടീച്ചേഴ്സ്സ് പറഞ്ഞ് തരുന്നൊരു കാര്യമായിരുന്നു നിങ്ങൾ സംസാരിക്കരുത് മിനി ച്ചേച്ചീന്നാണ് പുള്ളിക്കാരീടെ പേര് ആൻറ്റീടെ സൗണ്ട് പോലെയായിപ്പോവും ആൻറ്റി കഴിച്ചോണ്ടിരുന്നപ്പോൾ ചോറ് തൊണ്ടയിൽ കുടുങ്ങി ആൻറ്റീടെ സൗണ്ടായിപ്പോയതാണ് സർജറി ചെയ്തിട്ടൊന്നും മാറാൻസാധിച്ചില്ല ഇപ്പോൾ തൊണ്ടേലൊക്കെ നമുക്ക് പലവിധ സർജറികൾ നടക്കും പക്ഷേ അതൊന്നും സക്സസ്സാവണമെന്നില്ല ഒരു പോയിൻറ്റ് വൺ പേഴ്സൺറ്റേജ് പോലുമത് സക്സസ്സാവാനുള്ള ചാൻസ്സ് കുറവ് കുറവാണ് അതുപോലെ സംസാരശേഷിയില്ലാതെ ജനിക്കുന്ന ഒരുപാടാളുകളുമുണ്ട് അപ്പോൾ സംസാരശേഷിയുള്ള നമ്മൾ മറ്റുള്ളവർക്കീ സൗണ്ട് കൊണ്ട് എന്തേലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ശ്രമിക്കുക എനിക്കറിയാം ഒരു പനിവന്നാലുള്ള ബുദ്ധിമുട്ടെന്താന്ന് നമുക്കോരോത്തർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഒരു പനിവരുമ്പോൾ നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല ഒച്ചയെടുക്കാൻ പറ്റൂല നമ്മുടെ തൊണ്ടയിലെ പ്രശ്നങ്ങൾ അപ്പോൾ ഒരിക്കലും ജീവിതകാലത്ത് ഒരിക്കലും സംസാരിക്കാൻ പറ്റാത്തവരുടെ അവസ്ഥ നാം മനസ്സിലാക്കണം ഊമയായിട്ടുള്ളവരെ നമ്മൾ കാണുമ്പം അയ്യേ അവൾക്ക് സംസാരിക്കാൻ പറ്റില്ല അവൾ ഊമയാന്ന് പറഞ്ഞ് അവളെ കളിയാക്കാതെ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് നാം ഓർക്കുക നമ്മുടെ സംസാരം മറ്റുള്ളവർക്കൊരു ആകർഷണമുള്ള രീതിയിലായിരിക്കണം നമ്മുടെ സംസാരത്തിലൂടെ നമ്മുടെ ക്യാരക്റ്ററ് നമ്മൾ മനസിലാവുള്ളു കാണുന്നതല്ല സംസാരിക്കുമ്പോൾ ഇടപഴകുമ്പോഴാണ് ഒരാളുടെ സ്വാഭാവം എന്താണെന്ന് മനസ്സിലാകുന്നത് നമുക്ക് നൽകിയിരിക്കുന്ന സൗണ്ടിനേ നാം ഒരനുഗ്രഹമായി കണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ചൂട് വെള്ളം കുടിക്കുക ചുക്ക് കാപ്പി കുടിക്കുക തണുത്ത വസ്തുക്കൾ ഒരുപാട് തണുത്ത വസ്തുക്കൾ നമ്മളുടെ തൊണ്ടയ്ക്ക് സ്ട്രെസ്സോണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഇതൊക്കെ ചെയ്തോണ്ട് നമ്മളുടെ സൗണ്ടിനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്